ആ എനിക്ക് ഒരു ലോൺ വേണമായിരുന്നു വീടിൻ്റെ ആവശ്യത്തിനായിട്ടാണ് ആ അപ്പോൾ എന്തൊക്കെ ആയിരിക്കും ആവശ്യം ലോണിന് വേണ്ടിയിട്ട്

ആ ആ ആ ആ ഇപ്പോൾ ഇപ്പോൾ ലോണിന് ആ പറഞ്ഞോളൂ ഇപ്പോൾ ലോണിന് അപേഷിച്ചാൽ എത്ര ദിവസം അല്ലെങ്കിൽ എത്ര കുറേ മാസമെടുക്കുമോ കാരണം പെട്ടന്ന് വേണമായിരുന്നു

ഓക്കെ ഓക്കെ ഓക്കെ ആ ആ ആ ശരി ശരി എത്ര ഇപ്പോൾ എത്ര ആയിരിക്കും ലോൺ എത്രയായിരിക്കും ഇപ്പോൾ ലോൺ തരുന്നത് പത്ത് ലക്ഷത്തിൻ്റെ ലോണാണ് വേണ്ടത് എനിക്ക് ഇല്ല എനിക്കതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ല

ഓക്കെ ശരി ശരി ഓ അത് ഓക്കെ ആ അതൊക്കെ കൊണ്ടുവരാം ആ ആ ആ ആ ശരി ഓക്കെ അപ്പം ഞാനെല്ലാം എടുത്തിട്ട് ഇന്നുച്ചയ്ക്കല്ലേ ഇല്ല ഇതുവരെ എടുത്തിട്ടില്ല ഇത് ഫസ്റ്റ് ടൈമാണ്

ആ ആ ഓക്കെ ഓക്കെ ശരി എന്നാൽ താങ്ക്സ് ഇല്ലാ വേറെ ഇല്ല ഇല്ല അതെല്ലാം ആൾറെഡി ഉണ്ട് നമുക്ക് ഈ ലോണിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ആ ഓക്കെ ഓക്കെ